അല്ലേ എൻ്റെ പേര് അശോക് ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫൺഷൻസ് ഏൽപ്പിക്കാൻ വേണ്ടി ഞാനൊരു ആളെ നോക്കി നടക്കായിരുന്നു അപ്പോൾ താങ്കളുടെ ഇതിനെ കുറിച്ച് കേട്ടത് അപ്പോൾ അതിനെ കുറിച്ചു അറിയാൻ വിളിച്ചയാണ് എൻ്റെ ആദർശ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ആഹ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണം നിങ്ങൾ കവർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഓഹ് സോറി ആ അതുതന്നെ അതുതന്നെ അപ്പോൾ പാക്കേജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് മനസ്സിലായില്ല ആ ഇതൊരു ഹിന്ദു വെഡിങ് ആണു

ഓക്കേ ഓക്കേ ആ നമ്മൾ സേവ് ദി ഡേറ്റ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതെല്ലാം കൂടെ ഉൾപ്പെടെയാണു

ഓക്കേ ഓക്കേ ഇതിപ്പോൾ ഡേറ്റ് എന്നൊക്കെ പറയുന്നത് അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ സേവ് ദി ഡേറ്റ് ഒക്കെ തുടങ്ങാൻ ആലോചിക്കുന്നതു അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ചെയ്യണം എന്ന് കല്യാണം നമ്മൾ ഓഗസ്റ്റിലാണ് പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ഒരു ഇരുപത്താറാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ആ ആ നമുക്ക് ഫുൾ പാക്കേജ് തന്നെ നോക്കാം ആ അത് നമുക്ക് നോക്കാം ഈ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നയല്ലേ ക്യാൻഡിഡ് ഓഹ് ഓഹ് അതുശെരിയാ ഇപ്പോൾ ട്രെൻഡ് ആയി വരുന്നുണ്ട് അതു നമുക്ക് നോക്കാം അതും നോക്കിക്കളയാം ക്യാൻഡിടിനു വൺ ലാക്കോ അത് എന്നാൽ ആന്ന് ഞാൻ ചോദിച്ചിട്ട് പിന്നീട് പറയാം കേട്ടോ

കേട്ടില്ല ഓ ഓ ഓ അതിൻ്റെ ഓ ഓ ആ ആ കാണാറുണ്ട് കാണാറുണ്ട് ആ ആ ആ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ഏതായിരിക്കും നല്ലത് അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ എൻ്റെ വീടു വരുന്നത് എറണാകുളത്താണു അപ്പോ എറണാകുളത്തു പറവൂർ എന്ന് പറയും എൻ്റെ വീട് ആ അത് തന്നെ അതുതന്നെ ആ സ്ഥലം തന്നെ അപ്പോൾ നമുക്ക് നമുക്ക് സ്ഥലം ഇച്ചിരി തൃശ്ശൂർ ആയാലും പാലക്കാട് ആയാലും നോക്കാവുന്നത് ആണ് അത് വിഷയം ഇല്ല നല്ലൊരു സ്ഥലം നിങ്ങൾ പറയ് ഹലോ കേട്ടില്ല ഹലോ ബ്രൈഡിൻ്റെയോ ബ്രൈഡിൻ്റെ പാലക്കാട് ആണ് ഓ പാലക്കാടു ആയിട്ടില്ലേ ഓ ഓ ഓക്കേ ഓക്കേ ആ സേവ് ദി ഡേറ്റ് അല്ലേ ഓക്കേ ആ ആ ആ അപ്പോൾ ആ അപ്പോൾ അടുത്ത മാസം ഇരുപത്തിയേഴാം തീയതി ആ സമയമൊക്കെ നിങ്ങൾ ഫ്രീ ആകില്ലേ ആ അപ്പോൾ അതിനു മുൻപ് ബുക്കിംഗ് എന്നാൽ നമുക്ക് പെട്ടന്ന് തന്നെ ചെയ്തിടാം അത് വൈകിക്കുന്നില്ല ഓ ഓ അപ്പോൾ ക്യാൻഡിഡ് എനിക്ക് പിന്നീട് എടുക്കുമ്പോൾ അതിൻ്റെ ക്യാഷ് പിന്നീട് നോക്കിയാൽ പോരെ അത് ഞാൻ ഒന്ന് വീട്ടിൽ ചോദിച്ചിട്ട് ഓക്കേ അപ്പോൾ ഞാൻ അത് ചോദിച്ചിട്ട് പിന്നീട് വിളിക്കാം ആ ഞാൻ ഇത് ഇപ്പോൾ തന്നെ കേട്ടില്ല എറണാകുളത്തു എറണാകുളത്തു പറവൂർ പറവൂർ ആ ആ അറിയാം അറിയാം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറം ഉള്ള സ്റ്റോപ്പ് ആണ് ഓക്കേ ആ ഞാൻ ഗൂഗിൾ പേ ഇപ്പോൾ തന്നെ അയച്ചുതരാം ഓക്കേ അപ്പോൾ ശരി താങ്ക് യു എൻ്റെ പേര് അശോക് എന്നാണ് കേട്ടോ ഓ ആ ഓക്കേ